എല്ലാ ഗ്രാമത്തിലും ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കളിക്കുന്ന കളികളാണ് ക്രിക്കറ്റ് ഫുട് ബോൾ പിന്നെ നമ്മുടെ മറ്റ് കായിക ഇനങ്ങളായ ഷട്ടിൽ ബാഡ്മിന്റൺ അങ്ങനത്തെ തുടങ്ങിയ കളികളൊക്കെ നമുക്ക് ഇൻ്റർ കോർട്ടൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ സമയത്ത് നമ്മുടെ ലോകത്ത് തന്നെ എവിടെ നോക്കിയാലും ഏറ്റവും കൂടുതൽ പിന്നെ ഗ്രാമങ്ങളിൽ കളിക്കുന്ന ഒരു രണ്ട് കായിക ഇനങ്ങളാണ് ഫുട് ബോളും ക്രിക്കറ്റും നാട്ടിലത് കളിക്കുമ്പം നമ്മുടെ പ്രൊഫെഷണൽ സ്റ്റേഡിയത്തിൽ കളിക്കുന്ന പോലെ ഒരിക്കലും കളിയ്ക്കാൻ പറ്റില്ലല്ലോ ഇപ്പം നാട്ടിൽ നാട്ടിലിപ്പം ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു എല്ലായിടത്തും പിന്നെ ശരിക്കും പോസ്റ്റും ഇതൊന്നും ഉണ്ടാകണമെന്നില്ല അല്ലാത്ത സ്ഥലത്താണ് ഗ്രാമങ്ങളിലാണെങ്കിൽ സാധാരണ നമ്മൾ കവുങ്ങോ അലെങ്കിൽ എന്തെങ്കിലും മരത്തടിയോ വെച്ചിട്ടൊരു പോസ്റ്റുണ്ടാക്കും ജസ്റ്റ് ബേക്കിലൊരു നെറ്റ് കെട്ടും അങ്ങനെയാണ് ഫുട്ബോൾ കളിക്കുക സാദാ ഫുട് ബോൾ അങ്ങനെയാണ് ഫുട് ബോൾ കളിക്കുക ക്രിക്കറ്റാണെങ്കിൽ നമ്മളെന്താ പണ്ട് ഗ്രാമങ്ങളിൽ സത്യം പറഞ്ഞ് കഴിഞ്ഞാൽ മടലിൻ്റെ സ്റ്റമ്പും മടലിൻ്റെ ബേ റ്റു പ്ലാസ്റ്റിക്ക് ചുരുട്ടി ഉള്ളിൽ തുണിയൊക്കെ ചുരുട്ടി വെച്ചിട്ടുള്ള ബോളും ഒരു കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു